ആ ഇത് മീൻ വല്ലതും വന്നിട്ടുണ്ടോ ആ കരിമീൻ വേണം ഞങ്ങൾക്ക് കരിമീൻ കരിമീൻ വേണം ആ അത് ഫ്രഷായിട്ടുള്ള ആ ഫ്രഷായിട്ടുള്ള വേണം ആന്ധ്രാ കരിമീനൊന്നും വേണ്ട ആന്ധ്ര വേണ്ട ആ നാടൻ കരിമീൻ മതി ആ കായലില്ലേ നമ്മുടെ കായലിലൊക്കെ മീനില്ലേ ആ ആ വില ഒന്നും സാരം ഇല്ല നല്ല ഫ്രഷായാൽ മതി സാധനം പിന്നെ ഒരേ വലിപ്പത്തിലെ വേണം ഒരേ സൈസിലെ വേണം ഞാൻ പിന്നെ ഗസ്റ്റുണ്ട് അപ്പം പ ആ വലുതായാലും ചെറുതായാലും ഒരേ വലിപ്പം ആയിരിക്കണം ഒരേ സൈസായിരിക്കണം ആ ആ ഗസ്റ്റുണ്ട് അപ്പോൾ വലിപ്പവും ചെറുപ്പം ഒന്നും പാടില്ലല്ലോ അവർ ആ അവർക്ക് അതിൽ പക്ഷാഭേദം പാടില്ലല്ലോ അതുകൊണ്ട് ആ ഒരു കിലോയ്ക്ക് എത്രണ്ണം കിട്ടും ഒരു കിലോയ്ക്ക് എത്രണ്ണം കിട്ടും ആ എന്നാൽ രണ്ട് കിലോ ആ ആ രണ്ട് ആ ഒരു ആ ഒരു മീഡിയം സൈസ് നോക്കി അത് വെട്ടി മുറിച്ചാൽ തരുവല്ലോല്ലേ ആ ആ ആ വെട്ടാനൊന്നും ഇവിടാരുമില്ല വെട്ടി തരണം എനിക്കൊരു രണ്ട് മണിക്ക് ശേഷം വൈകിട്ടത് ആണ് ആ അപ്പോൾ ആ അപ്പം വെട്ടുന്നതിന് എക്സ്ട്രാ ചാർജുണ്ടോ ചാർജൊന്നുമില്ല ഇതിൽ തന്നെ പോവും അത് ആ സർവീസ് ചാർജുണ്ടോ നിങ്ങൾ ഇവിടം വരെ വീട്ടിൽ കൊണ്ട് തരുന്നതിന് ചാർജുണ്ടോ

ആ കൊടുത്തോളാം കൊടുത്തോളൂ ഓക്കേ ആ പിന്നെ ആ ഡെലിവറി എങ്ങനെ ഇത് സ്കൂട്ടറിലാണോ വരുന്നത് ബൈക്കിലാണ് വരുന്നത് ആ ആ അപ്പോൾ അവൻ്റെ പേരും കൂടെ പറഞ്ഞേര് ഇനി ഞാൻ വരുമ്പോഴത്തേക്ക് ഞാൻ വേറെ സ്ഥലം ഞാൻ ചിലപ്പോൾ ഇവിടെ കാണത്തില്ല വേറെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പുറത്ത് പോവുന്നുണ്ട് പിന്നെ വീട്ടിൽ പിള്ളേരെ ആ അപ്പോൾ ആ ഈ നമ്പര് കൊടുത്താൽ മതി ഈ നമ്പര് ഞാൻ കൊ വീട്ടിൽ ഫോൺ വെച്ചിട്ട് പോയിക്കൊള്ളാം ആ ആ ആ ഞാൻ തായങ്കരീന്ന് വരുമ്പോൾ തായങ്കരീന്നാ വരുന്നതെങ്കിൽ ഒരു തോട് തിരിയുന്നതിൻ്റെ എറപ്പിലായിട്ട് വരും റോഡ് സൈഡ് തന്നെയാണ് ആ തോടാണ് ഞാൻ എപ്പോഴും പറയുന്ന മാർക്ക് പറയുന്നത് അവിടെയാണ് ആലോചിച്ച് നമ്പറ് കൊടുക്കും ആ ആ ആ വിളിച്ചാൽ മതി ഇടക്കൊന്ന് വിളിച്ചാൽ മതി ആ ഓക്കേ ഓക്കേ ഓക്കേ ബൈ ആ ശരി ആ